വയനാട് ജില്ലയിൽ പണ്ട് ഭയങ്കര തണുപ്പ് ആയിരുന്നു മനുഷ്യന് സഹിക്കാൻ പറ്റാത്തതിലപ്പുറം ഊട്ടി പോലെയായിരുന്നു പണ്ട് വയനാട് ജില്ല ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ മിതമായ രീതിയിലുള്ള ചൂടും തണുപ്പുമായിട്ടാണ് ഈ ഈ മാസങ്ങളിൽ ചില മാസങ്ങളിൽ ഭയങ്കര തണുപ്പായിരിക്കും എന്നാലും നമുക്ക് അത് അതിജീവിക്കാൻ കഴിയുന്ന ഒരു തണുപ്പാണ് പണ്ടു കാലങ്ങളെപ്പോലെ അതിശൈത്യം ഇല്ലായിരുന്നു മഞ്ഞും മഞ്ഞു മൂടുന്ന ആ സമയം ഇക്കരയിൽനിന്ന് നോക്കിയാൽ അക്കരെ കാണാത്ത തരത്തിൽ മഞ്ഞ് മൂടലുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല ഇപ്പം സാധാരണ രീതിയിൽ പ്രകൃതി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വയനാട് ജില്ല ഊട്ടി പോലെയല്ല അതുത്തന്നെയെന്ന് പറയാം